ലോക്ക്ഡൗൺ കാലത്ത് ഞങ്ങളൊരുപാട് പരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് ഡൗൺ കാലത്താണ് എല്ലാം ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് വീട്ടില് അതായത് എനിക്കാദ്യം അങ്ങനെ ഒന്നും അറിയില്ലയിരുന്നു ഞാനിങ്ങനെ അമ്മേനെ അടിച്ചുവാരി തുടയ്ക്കാനും പിന്നെ വാഷിംഗ് മെഷിനിൽ കൊണ്ടുപോയി അലക്കാനിടാനും അലക്കിയത് കൊണ്ടുപോയി ആറിടാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളു പിന്നെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക് ഡൗൺ ആയപ്പോഴാണ് ഞാൻ മര്യാദയ്ക്ക് ചോറും കറിയും ഒക്കെ വയ്ക്കാനും ചോറ് മര്യാദയ്ക്ക് എനിക്ക് വാർക്കാൻ പോലും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ അമ്മ പഠിപ്പിച്ചു തന്നത് ലോക്ക് ഡൗണിൻ്റെ സമയത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പഴായിരുന്നു എൻ്റെ കല്യാണമൊക്കെ നടന്നത് കെട്ടോ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി ഇപ്പം ലോക്ക് ഡൗൺ സമയമായതു കൊണ്ട് അമ്മയും വീട്ടിലാണ് അമ്മ കോളേജ് കാൻറീനിലാണ് ജോ ജോലി ചെയ്യുന്നത് അപ്പോൾ കോളേജൊക്കെ അടച്ചത് കൊണ്ട് പിന്നെ അമ്മ വീട്ടില് പിന്നെ കാൻറീനില് പിന്നെ അല്ല അമ്മ വീട്ടില് ഇരിക്കുന്ന സമയത്താണല്ലോ നമുക്കെല്ലാം പറഞ്ഞു തരാനൊക്കെ പറ്റുക അപ്പം ചോറും കറിയും വെക്കാനും എല്ലാം ഞാൻ അങ്ങനെയാണ് പഠിച്ചത് പിന്നെ ഉള്ളിവട പഴംപൊരി പരിപ്പുവട അങ്ങനെ എല്ലാ സാധനങ്ങളും അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു അമ്മ അതൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുവായിരുന്നു കോളേജിൽ ആയതു കൊണ്ട് അതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നു അതുകൊണ്ടെനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഇത് ഉപകാരം മനസ്സിലായത്